ആ ഹലോ

ആ ട്രഡീഷണൽ വെയർ ആയിട്ടുള്ളതാണോ

ആ ആ അപ്പോൾ ഓണം ഒ ഓ ഓണം ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ട് ആ ഒ ഷർട്ട് ഉണ്ട് ദോത്തീസ് ഉണ്ട് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ എത്ര പീസ് വേണം വലിയ പീസ് ആണോ ആ ആ ആ ദോത്തീസ് എങ്ങനത്തേതാണ് വേണ്ടത് ഗോ അത് പിന്നെ കര അതിന്റെ സിൽവർ ഉണ്ട് ഗോൾഡൻ ഉണ്ട് ഗോൾഡൻ ആണോ ആ ആ പിന്നെ പ്രിൻ്റ് വേണോ ഷർട്ടിന് അത് എങ്ങനെയാണ് പിന്നെ ഫ്ലോറൽ ആയിട്ടുള്ള പ്രിൻ്റോ വേണ്ടത് മ്യൂറൽ പെയ് പെയിൻ്റിങ്ങ് ആണോ വേണ്ടത് എങ്ങനത്തെ കഥകളി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇതായിട്ട് ആ ആ ആ ആ ട്രെൻറ്റിങ്ങ് ഒരേ ഒരേ സൈസിലുള്ളതാണോ വേണ്ടത് അപ്പോൾ എത്രയാണ് സൈസ് വരുന്നത് മീഡിയം ആ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ളത് അല്ലേ അപ്പോൾ എങ്ങനെ ഒ ഓ കോട്ടൺ മെറ്റിരിയലിലാണ് വരുന്നത് ക്ലോത്ത് ലിനൻ കോട്ടണിൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് പിന്നെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് അതിൻ്റെ എബൗ ആയിട്ടാണ് വരുന്നത് ഓഫർ ആ രണ്ടും കൂടി എടുക്കുമ്പോൾ രണ്ട് സെറ്റ് എടുക്കുമ്പോൾ ഓഫർ ആയിട്ട് വരും ഒര് ട്വൻ്റി പേർസെൻ്റേജ് ഓഫർ വരും

ഒ ഓ നാളെ അയയ്ക്കാം ഈ ഓർഡർ ഈ വാട്സ്ആപ്പിലേക്ക് ഇട്ടോളൂ നമ്പറും പിന്നെ ക്യാഷും ഇവിടെ അഡ്വാൻസ് ഒ ഓ ഓക്കേ ഒരു ഹായ് വിട്ടേ ഒ ഓ അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുവല്ലേ ഇല്ല ടേ ഒന്ന് കണ്ട് എടുക്കാവുമ്പോൾ അതല്ലേ നല്ലത് മെറ്റീരിയൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുവേം ചെയ്യാം ആ ഓ ഓക്കേ